ഞാൻ കലാരംഗത്ത് അങ്ങനെ പൂർണ്ണ സമയം ചിലവിടുന്ന ആളല്ല എങ്കിലും കല ആസ്വദിക്കാനും കല

എനിക്ക് പരിമിതമായ അറിവിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാനാകൂ

ശ്രീ ബ്രഹ്മാസമേള കോളേജാണ്

പിക്ചർസ് ഒക്കെ വരച്ച് അത് യൂസ് ചെയ്ത് കാണാറുണ്ട് പലർക്കും കൊടുത്തിട്ടുണ്ട്